ഞങ്ങളുടെ ചുറ്റും കാണുന്ന സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന രൂപങ്ങൾ ദാറ്റ് മീൻസ് ബേസിക് ഫോംസ് ഏതൊക്കെയാണെന്നുള്ള കൊസ്റ്റിനുള്ള ആൻസർ ആണ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ഗതിയിൽ ഇവിടെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യയിലൊന്ന് വാട്സപ്പാണ് രണ്ടാമത്തേത് പിന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ എന്നതാണ് അങ്ങനെ അത്രയേ ഉള്ളെന്നു തോന്നുന്നു എനിക്ക് അത്രയേ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാമ് അങ്ങനെയുള്ള സംഗതികളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ആ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തീട്ടുള്ള കാര്യമാണ് ടെക്നിക്കലി ടെക്നോളജി നമ്മുടെ ഭാഗങ്ങളിൽ വളർന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ആൻഡ്രോയ്ഡ് ഫോണുകളുണ്ട് വിദേശത്തായിരിക്കുന്ന പഠിക്കാനയക്കുന്ന മക്കൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ വാട്സാപ്പ് വഴി കാണാനും സംസാരിക്കാനും ഡൈയിലി നമ്മൾക്ക് അവരുടെ സ്വരം കേൾക്കാൻ അവരെ നേരിട്ട് കാണാനും സാധിക്കുവെന്നു പറയുന്നത് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പം എല്ലാ വൃദ്ധ ജനങ്ങളുടെ നാടെന്നല്ലേ അറിയപ്പെടുന്നത് പക്ഷേ പറിയം എന്ന് പറഞ്ഞ ഈ ചെറിയ ഈ വില്ലേജ് അതിൽനിന്ന് ഒട്ടും മോശമല്ല പ്രായമായ കാർന്നോമ്മാർ മാത്രമുള്ള വീടുകളാണ് ഇവിടെയുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ദൂരത്ത് നിന്നും മക്കൾക്ക് വരെ കാണുമ്പോൾ അവർക്കും സന്തോഷം ദൂരത്തിരിക്കുന്ന മക്കൾക്കും പിന്നെ നല്ലയിതാണ് പിന്നെ വീടുകളിൽ എല്ലാം തന്നെ സി സി ടി വി ക്യാമറ ബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവർക്കത് അവരുടെ ലാപ്ടോപ്പുമായിട്ട് കണകട് ചെയ്യാണെങ്കിൽ വീട്ടിലെന്ത് സംഭവിക്കുന്നു ചുറ്റുവട്ടത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് അവിടിരുന്നുകൊണ്ട് നോക്കി കാണുമ്പോൾ ഇത്തിരി ആശ്വാസങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുന്നു പറയട്ടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മെയിൽ ചെയ്യാനും പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മെയിൽ ചെയ്യാനുണ്ട് ഞങ്ങളുടെ ബാങ്കിങ് സംമ്പന്ധമായ കാര്യങ്ങളിൽ മൊബൈൽ ആപ്പ് വഴിയും ഇൻ്റർനെറ്റ് വഴിയും നെറ്റ് ബാങ്കിങ് വഴിയും ഒക്കെ കുറെ ഫണ്ടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അബ്ബ പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെറുതെയിരിക്കുമ്പോൾ നമ്മൾ ഗെയിംസ് ഡൗ ഡൗൺലോഡ് ചെയ്തു പോലും നമ്മൾ അതൊക്കെന്നു പറഞ്ഞാൽ നമ്മളുടെ എന്താണ് പറയുന്നത് നമ്മളുടെ സമയങ്ങളെ നമ്മൾ എത്രമാത്രം ആക്റ്റീവ് ആക്റ്റിവ് ആക്കി തീർക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണം പിന്നെ മാതൃഭൂമിയുടെതും മനോരംമയുടേതും ആയിട്ടുള്ള പത്രം ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് യാത്രയിലൊക്കെ പോവുകയാണെങ്കിലും നമ്മളുടെ ആ ആപ്പ് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലോക്കൽ ന്യൂസ് അല്ലെ സ്പോർട്സ് അല്ലെ മെയിൻ ഹെഡിങ്സ് അതൊക്കെ കിട്ടും ഇപ്പം ഇപ്പം ഈ നിമിഷം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങൾ അപകടങ്ങൾ അങ്ങനെയുള്ളതെല്ലാം എഴുതികാണിച്ചു വരുന്നുണ്ട് നമുക്ക് ആ ന്യൂസും ഡൗൺലോഡ് ചെയ്തു എടുക്കുവാണെങ്കിൽ വീട്ടിലില്ലാത്ത സമയത്ത് ഓൺ ദ വേ യാത്രയിലൊക്കയാണെങ്കിലും നമുക്കതൊക്കെ വായിക്കാൻ എന്ന പറയുന്നത് ഇന്നത്തെ കാലത്തൊരു വലിയൊരു എന്താ പറയുന്നത് നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ടെക്നൊളജിക്കൽ ഒരു ബെനഫിറ്റാണെന്നേ ഞാൻ പറയത്തുള്ളൂ അതിന് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പിന്നെ പിള്ളേരെപ്പോലെ ഉള്ളവരെ സംബന്ധിച്ചാണേൽ യൂട്യൂബ് യൂട്യൂബിനു ഭയങ്കര ഇൻഫ്ളുവൻസാണ് വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് വീട്ടിലുള്ള വീട്ടമ്മമാരടക്കം എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യാം ചെടികളെങ്ങനെ സംരക്ഷിക്കാം കുറച്ചുടെ മുന്നോട്ട് പോയാൽ ഏതൊക്കെ വളങ്ങൾ ഇടാം നമ്മൾ എന്തൊക്ക എന്തെല്ലാം എന്ത് സംഗതികളും സെർച്ച് ചെയ്താൽ അടിച്ച് കൊടുത്താൽ യുട്യൂബിൽ അവർ ആധികാരികമായിട്ട് പലരും പറയുന്നത് ക്വാറ ഡൈജസ്റ്റെന്നും പറഞ്ഞൊരിതുണ്ട് അതിനകത്താണേൽ നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സംശയം ചോദിച്ചാൽ ആൾക്കാർ അതിനെക്കുറിച്ച് അവർക്ക് അറിയാവുന്ന തരത്തിലുള്ളത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആണല്ലോ അറിയാൻ താൽപ്പര്യം അതായത് ഓരോ വ്യക്തിക്കും ഏതാണ് അവരുടെ എൻ്റർടൈൻമെൻ്റ് അല്ലേൽ ഏതാണ് അവരുടെ മുഖ്യമായ താല്പര്യമുള്ള വിഷയം അതിനെക്കുറിച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ നെറ്റിൽ സെർച്ച് ചെയ്യാം പിന്നെ വാട്സാപ്പിലും നമുക്ക് ആൾക്കാർക്ക് നമ്മൾക്ക് നമ്മൾ അറിയുന്ന നമ്മൾ അറിഞ്ഞ വിവരങ്ങളെല്ലാം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെ ഇൻഫർമേഷൻ അതൊക്കെ നമുക്ക് പാസ് ചെയ്യാം അതായതൊരു വൈഫൈ കണക്ഷനോ അതല്ലങ്കിലൊരു മൊബൈൽ ഡാറ്റായോ എന്തെങ്കിലുമുണ്ടെങ്കിൽ വളരെ അധികം ഈസിയായിട്ട് നമുക്കത് സാധിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയുടെ ബേസിക് ഫോംസ് നമ്മളുടെ ജീവിതത്തെ പ്രത്യേകിച്ചും ഒരു പ്രായമായ വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തി വേറൊന്നും വേണ്ട കോവിഡിൻ്റെ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ ക്ലാസ് ഓൺലൈൻ ക്ലാസ്കൾ അതൊക്കെന്നു പറഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നൊരു പതിനഞ്ച് വർഷം അല്ലേൽ ഇരുപത് വർഷം മുന്നേ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം എങ്ങനെ ആകുമായിരുന്നു പിന്നെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നെറ്റ് വഴിയല്ലാതെ പിള്ളേരാരും ഒന്നും പഠിക്കുന്നും എടുക്കുന്നും ഒന്നും ഇല്ല പണ്ട് ബുക്കുകളെ ആശ്രയിച്ച് ഇരിക്കുന്നവർ ഇപ്പോൾ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചുകൊണ്ട് ബുക്ക് റീഡിങ് കുറഞ്ഞുന്നുള്ള ഡിമെറിറ്റ് ഇതിൻ്റെ ഭാഗത്ത് ഉണ്ട് എങ്കിൽപ്പോലും ഈ സാങ്കേതിക വിദ്യ ഇല്ലാതെ ഇനി മുന്നോട്ട് പിന്നെ ഭരണ പരമായിട്ട് ഫിനാൻഷ്യലി എഡ്യൂക്കേഷണൽ അങ്ങനെ ഏത് ലെവലിൽ നോക്കിയാലും ഇത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ജീവിതം വളരെയധികം വളരെ വളരെയധികം എളുപ്പമാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്